നൃത്തം എന്ന് പറയുന്നത് നമുക്ക് കണ്ടാസ്വദിക്കാൻ എന്നതിലുപരി നമ്മുടെ ഹെൽത്ത് വൈസ് പറയുകയാണെന്നുടെങ്കിൽ നല്ല ഒരു എന്താ പറയുക എക്സസൈസും കൂടിയാണ് നന്നായിട്ട് നൃത്തം ചെയ്യുന്ന ഒരാള് അസുഖങ്ങള് ഷുഗറ് കൊളസ്ട്രോള് അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് കൂടുകയില്ല കൂട് ഉണ്ട ഉണ്ടാകില്ല കൂട് കൂടി നിൽക്കുന്ന ആൾക്കാര് അത് കുറയ്ക്കാനും ഒക്കെ നമുക്ക് വളരേ അധികം ഹെൽപ്പ് ഫുള്ളാണ് നമ്മുടെ നമുക്കങ്ങനെ പെട്ടെന്ന് അസുഖങ്ങള് വരികയും അങ്ങനൊന്നും ഉണ്ടാവില്ല ഒരു കണക്കിന് നല്ലൊരു എക്സസൈസും കൂടെയാണ് നൃത്തം എന്ന് പറയുന്നത് അങ്ങനെ നമ്മള് ഇങ്ങനെ ഉള്ള അസുഖങ്ങളെക്കെ നിയന്ത്രിച്ച് കൊണ്ട് പോകാനായിട്ട് നമ്മളെ വളരെ അധികം ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ എല്ലാവർക്കും ഇത് ചെയ്യുന്നതിലൂടെ അതിൽ നിന്നിങ്ങനെ ഓരോ അഭി അഭിപ്രായങ്ങള് നല്ലത് മറ്റുള്ളവര് ഇങ്ങനെ പറയുന്നത് കേൾക്കാനും ഒക്കെ നമുക്ക് നമുക്കാർക്കായാലും ഇപ്പം സന്തോഷം നമ്മള് കാര്യം ചെയ്ത് കഴിയുമ്പോൾ നല്ലതാണെന്ന് കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും അപ്പം അങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് നല്ലൊരു ഹാപ്പിനെസ്സ് നമുക്ക് കിട്ടുകയും ചെയ്യും മറ്റുള്ളവരെ അത് നമുക്കിങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് മറ്റുള്ളവരെ നമുക്കറിയിക്കാനും അതിലൂടെ ആയാലും നമുക്കൊരു ഹാപ്പി നമ്മള് സന്തോഷിക്കാനും നമുക്ക് സാധിക്കും അങ്ങനെ ഒക്കെ ഉള്ള കുറെ കാര്യങ്ങള് നമുക്ക് നൃത്തത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്